ഹലോ ഹലോ കേൾക്കുന്നില്ലേ ഹലോ കേൾക്കുന്നില്ലേ ആ ഞാനേ ഗ്യാ ഗ്യാസിൻ്റെ ഏജൻസി അല്ലേ ആ ഞാൻ കുറച്ച് നമ്മൾ പുതിയ കണക്ഷൻ എടുത്തുപോയതാണ് അപ്പോൾ എങ്ങനെയാണ് ഗ്യാസ് സിലിണ്ടർ ഒഴിഞ്ഞാൽ നിറയ്ക്കൽ ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് വലിയ ധാരണ ഇല്ല അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ് ആ പുതിയ കണക്ഷൻ എടുത്തതാണ് എത്ര കുറ്റിയാണ് ഉള്ളത് ഒരു വീടിന് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടോ മൂന്നോ ഒരു കൊല്ല കൊല്ലത്തിൽ എത്ര വരെ കിട്ടും കിട്ടും അല്ലേ ആ ആ ആ സബ് സബ്സിഡി കിട്ടണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആണോ അത് വെണം നിർബന്ധം ആണല്ലേ ആ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടി വരും അല്ലേ

ഒരു കുറ്റിക്കെങ്ങനെ റേറ്റ് മ് ഇപ്പോൾ മ് പിന്നെ വീട്ടിൽ എത്തിക്കുമോ എങ്ങനെയാണ് നമ്മൾ ഗ്യാസ് തീർന്നുകഴിഞ്ഞാൽ

ഉം ഉം ഉം ഉം ഉം ഉം ഉം ഉം

ഉം ആ ആ ഓക്കെ ബുക്കിംഗ് നമ്പർ ഉണ്ടാവും അല്ലേ ആ ശരി എന്നാൽ